ഗ്രാമീണ നഗര അധ്യാപക രീതിയെക്കുറിച്ചു പറയാനാണെങ്കിൽ ഗ്രാമത്തിൽ ടീച്ചേർസ്മാർ എന്താ പറയുക ടീച്ചേഴ്സ്മാർ ഒരു കുഞ്ഞു ഒരു ഒരു ബില്ഡിങ്ങിൽ എന്താ പറയ രണ്ട് മൂന്ന് പിള്ളേരുകളെ രണ്ട് മൂന്ന് കുട്ടികളേ കുറവായിരിക്കും അവരെ ഗ്രാമത്തിലെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരു പ്രായമാവുമ്പോൾ തന്നെ വിദ്യാഭ്യസം നിർത്തി എന്താ പറയ പണിക്കിറങ്ങും അതുകൊണ്ടു ഗ്രാമത്തിൽ എന്താ പറയുക കുട്ട്യോൾടെ എണ്ണം വളരെ കുറവാണ് ആ അധ്യാപകരും വളരെ കുറവാണ് എന്താ പറയുക അതിന് ഗ്രാമീണർക്ക് അതിൻറ്റേതായ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഗ്രാമം ഗ്രാമത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസരീതിയെക്കുറിച്ചും അധ്യാപക രീതിയെക്കുറിച്ചും പറയാനാണെങ്കിൽ വളരെ എന്താ കുറഞ്ഞുവരികയാണ് ഗ്രാമങ്ങളിൽ പഠിക്കാൻ പഠിക്കവുന്ന ടീച്ചേഴ്സുമാരുമില്ല പഠിപ്പിക്കാൻ കുട്ട്യോളുമില്ല